ഹലോ ആ ഇത് ആരാണ് ആ പച്ചക്കറി ഷോപ്പ് തന്നെ ഇത് ആരാണ് വിളിക്കുന്നത് ആ എന്ത് വേണം എന്ത് വേണം വെണ്ടക്ക ഉണ്ട് കാര മുരിങ്ങ ഉണ്ട് കയ്പ്പക്ക ഉണ്ട് ആ മുരിങ്ങാക്കോൽ ഉണ്ട് ബീൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വേണം സാമ്പാറിന് വെണ്ടക്ക ഉണ്ട് വെണ്ടക്ക ഉണ്ട് തക്കാളി ഉണ്ട് മുരിങ്ങാക്കോൽ ഉണ്ട് എത്ര എത്ര വേണം എന്താണ് പരിപാടി ഉണ്ടോ വീട്ടിൽ ആ എത്ര ആൾ ഉണ്ടാവും ഏഹ് ഏത് എല്ലാം ഇന്ന് ഇപ്പം ഇറക്കിയതേ ഉള്ളൂ സാധനം ഇപ്പോൾ ഇറക്കിയതേ ഉള്ളൂ ഫ്രഷ് സാധനം ആണ് ഇപ്പം ഇറക്കിയത് സാധനം എത്രച്ച വേണം കിലോന് എത്ര കിലോ വേണം ആ ആൾ എത്ര ഉണ്ട് ആൾ എത്ര ഉണ്ട് ആ അപ്പോൾ ആ ഒരു അഞ്ഞൂറാക്കേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് കിലോ മൺഡേക്ക് എടുക്കട്ടോ

കിലോന് ഒരു ഇരുപത് വച്ചിട്ട് തരാം തക്കാളിക്ക് മുപ്പത് വെണ്ടക്ക ഇരുപത് കയ്പ്പക്ക നാൽപത് ഓ അഞ്ഞൂറ് തുണി തുണി സഞ്ചി എടുത്തോളൂ അല്ലെങ്കിൽ ചാക്കിൽ നമ്മൾ അങ്ങോട്ട് കെട്ടിത്തെരാം ആ ആ ആ ശരി